ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളാണ് ഉള്ളത് കാരണമെന്നു വച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ആരോഗ്യ സംവിധാനമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട് പക്ഷെ ഇന്ത്യയ്ക്ക് പുറമെയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ വളരെ മോശമായ രീതിയിലാണ് ഉള്ളത് കാരണം എന്തെന്നു വച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ സ്ഥിതികളും കാര്യങ്ങളുമൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ് ഉള്ളത് കാരണം അവിടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ചെന്നാൽ പോലും ആരും അവരെ നോക്കുന്നില്ല പിന്നെ എന്താ പറയുക വളരെയധികം പ്രശ്നങ്ങളാണ് അവിടെയുള്ളത് അവർ പറയും ഇപ്പോൾ മലയാളികളൊക്കെ ആണെങ്കിൽ അവർ പറയും നിങ്ങൾ പോലീസിന്റടുത്തു പോയിട്ട് വാ അങ്ങനെ ഇങ്ങനെ ആണെന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് നൽകുന്നത് പിന്നെ ഒന്നാമത് നല്ലൊരു മുറിവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അവരാരും ഒന്നും ഏറ്റെടുക്കില പിന്നെ ഒന്നാമത് ഹോസ്പിറ്റലുകൾ വളരെ കുറവാണ് ഈ പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അവരുടേതായ ഭാഷയിലേക്കാണ് കൂടുതലായിട്ടും എഴുതിയത് ഇംഗ്ലീഷിലൊക്കെ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്